ഇവിടെയല്ലേ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കണ സ്ഥലം ആ ആ എന്താ ഒരു ലിറ്ററിനൊക്കെ എന്താ വില

എനിക്ക് ആ എന്തായിപ്പോൾ അതു തമ്മിലൊരു വ്യത്യാസം

ഏത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്

ആ ആ ആ അപ്പോൾ രണ്ടിനും എന്താ വില ഓ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ലല്ലോ

ആ ആ

ആ ആ

അതിലുപ്പൊന്നും ആഡ് ചെയ്യില്ലല്ലോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ല ചില സ്ഥലങ്ങളിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്

ഉപയോഗിക്കാം അല്ലെ

മുടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലേ കുക്കിങ്ങിനും പറ്റും ആണോ ആ ആ എന്നാ ഒരു രണ്ടു ലിറ്റർ എടുത്തോളൂ